ഞാനിപ്പം ക്യാൻ്റിങ്ങിലാണ് ഇപ്പം ജോലി ചെയ്യുന്നത് കാരണം ഞാൻ അതിലേക്ക് എത്തിപ്പെടാനൊരു വഴിയെന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ കൂലിപ്പണിക്ക് പോയിട്ടുണ്ടെങ്കിൽ ആകെ ഒരു ദിവസം ചിലപ്പം നാന്നൂറ് രൂപ കിട്ടും എട്ട് മണിക്ക് പോയിട്ടുണ്ടെങ്കിൽ നാലര വരെ നമ്മൾ കഷ്ടപ്പെട്ട് പണിയെടുത്താൽ നാന്നൂറ് രൂപയാണ് നമ്മുടെ കയ്യിൽ കിട്ടുക ഇതെന്നു പറഞ്ഞാൽ ക്യാൻ്റിങ്ങെന്നു പറഞ്ഞെങ്കിൽ നമ്മൾ ഒരു പിന്നെന്താ ഹോട്ടല് പോലെ അത് ഹോട്ടൽ ഭക്ഷണം കഴിക്കാൻ ആൾക്കാർ വരും അതിൽ നിന്നും നമ്മൾക്ക് കിട്ടുന്ന വരുമാനം എന്നു പറഞ്ഞെങ്കിൽ ഈ കൂലിപ്പണിക്ക് പോകുന്നതിനെക്കാട്ടിയും കൂടുതലാണ് അതുകൊണ്ടാണ് ഞാൻ ക്യാൻ്റിങ്ങ് തിരഞ്ഞെടുടുക്കാനുള്ള കാരണം ഒരു ഉപജീവിതമായിട്ടു മുന്നോട്ടു പോകുകയാണെങ്കിൽ നമുക്ക് എന്തായാലും വരുമാനം ക്യാൻ്റിങ്ങിൽനിന്ന് കൂടുതൽ തന്നെയാണ് കിട്ടുക മറ്റ് വരുമാനങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ ജോലി ചെയ്താലും ഇതു പോലെ ഒരു ജോലിയായിരിക്കില്ല പകരം നമ്മളിപ്പം ഒരു പണിക്ക് കൂലിപ്പണിക്കെന്നു പറഞ്ഞിട്ട് പോയിക്കഴിഞ്ഞാൽ ഒരു ദിവസം വള്ളിക്ക് വള്ളിക്ക് വളം ഇടാനാണെങ്കിൽ അതുപോലെതന്നെ ആ ദിവസം തന്നെ നമ്മള് വേറെ പണികളും എടുക്കേണ്ടതായിട്ട് വരും കാരണം വള്ളിപ്പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ തോട്ടം കിളയ്ക്കാൻ പറയും ഇതെന്ന് പറഞ്ഞെങ്കിൽ നമ്മൾക്ക് ചോറുണ്ടാക്കി ഭക്ഷണം ഉണ്ടാക്കേണ്ട ഒരു പണി മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഭക്ഷണം എന്നു പറഞ്ഞെങ്കിൽ നല്ല രീതിയിൽ നല്ല രുചിയ്ക്ക് നല്ല സ്വാദിലും കൊടുക്കുകയാണെങ്കിൽ ഈ പണി തന്നെയാണ് നമുക്ക് മെച്ചം കാരണം നമ്മൾ വീട്ടിൽനിന്ന് രാവിലെ പോന്നു നമ്മളെ പണി ഉച്ചയോടു കൂടി തീരുന്നു ഉച്ച കഴിഞ്ഞ് പാത്രം എല്ലാം കഴുകി വച്ച് നമ്മളെ വീട്ടിലേക്ക് വരാമെന്ന രീതിയാണ് ക്യാൻ്റിങ്ങ് മറ്റേ കൂലിപ്പണിയെന്ന് പറഞ്ഞെങ്കിൽ നമ്മൾക്ക് ഒരു സമയം നിശ്ചയിട്ടുണ്ടാവും എട്ടു മണി തൊട്ട് നാല് മണി വരെ ഏതൊരു കർഷകൻ്റെ ഒരു മുതലാളിയുടെ വീട്ടിൽ പോയാലും നമ്മൾ പണിക്കു പോവുകയാണെങ്കിൽ രാവിലെ എട്ട് മണി കറക്ട് അയാൾ വാച്ചു നോക്കും നിങ്ങൾ എത്തിയോ എത്തി കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഒരു ഗ്യാപ്പ് എന്നു പറയുന്നുണ്ടെങ്കിൽ ഒരു ചായ കുടിക്കുന്നത് കുറച്ച് സമയം മാത്രമേ നമുക്ക് ഒഴിവുണ്ടാവുള്ളൂ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉച്ചയ്ക്ക് ഒന്ന് ചോറ് തിന്നാൻ ചിലപ്പം ചോറ് കൊണ്ടുപോയിട്ടുണ്ടാവില്ല അന്ന് ചോറ് തിന്നലുണ്ടാവില്ല ക്യാൻ്റിങ്ങ് എന്നു പറഞ്ഞാൽ നമ്മൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ഭക്ഷണം കഴിക്കാം നമുക്ക് ഇപ്പോൾ ഇത് കുറച്ചു നേരം നാലോ മൂന്നോ അഞ്ചോ ആൾക്കാർ നമ്മളെ കൂടെ പണി ചെയ്യാൻ ഉണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണങ്ങൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാം എല്ലാ കാര്യങ്ങൾക്കും നല്ലത് നമുക്ക് സ്വന്തമായിട്ട് ജോലിയാണ് അതാണ് ഞാനിത് തിരഞ്ഞെടുക്കാനുള്ള കാരണം